ഹലോ മണ്ണൂത്തി സർവകലാശാല ആ പറഞ്ഞുകൊള്ളൂ പറഞ്ഞുകൊള്ളൂ

ഏത് ഇപ്പോള് നമുക്ക് ഒത്തിരി പലതരത്തിലുള്ള വത്തുകളുണ്ട് നമുക്ക് വാഴയുടേതാണോ അറിയേണ്ടത് അതോ നെല്ലിൻറ്റെയാണോ അറിയേണ്ടത്

വേണം വേണം ആ ആ ആ ആ ആ ആ ആ നിങ്ങളെവിടെ നിന്നാണ് വിളിക്കുന്നത് സ്ഥലം കോട്ടയമാണ് കോട്ടയമാണ് ആ ഓക്കെ ആ ആ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വന്ന് ആ ആ ആ ഓക്കെ ആ അപ്പോള് അവിടെ ഞങ്ങള് നമുക്കവിടെയും വേറെ ഓഫിസുകളുണ്ട് അപ്പോള് അവര് പേടിക്കാനൊന്നുമില്ല ഞങ്ങളിവിടെ നിന്ന് പറയുന്ന സാധനങ്ങള് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോള് അവിടുത്തെ ഓഫീസിലെ ആൾക്കാരാണെങ്കിലും വന്ന് നിങ്ങളെ സഹായിക്കും

അല്ലല്ല ഞാന് ഇപ്പോള് നിങ്ങള് ഞാനിപ്പം പറഞ്ഞുതരാം എന്നിട്ട് പിന്നെ നമുക്ക് സാധനങ്ങളെത്തിച്ച് കഴിയുമ്പോള് ഞാന് അവരുടെ ആൾക്കാരെയും കൂടെ വിടാം അപ്പോള് നമുക്ക് ഇപ്പോള് കാര്യങ്ങള് കുറച്ചുകൂടെ എളുപ്പമാകും ഇപ്പം നമുക്കിപ്പോള് രണ്ട് രണ്ട് തരത്തിലുള്ള വിത്തും കേരളത്തില്ത്തന്നെ നമ്മള് നമ്മുടെ കാർഷിക കോളേജില് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അപ്പം നമുക്ക് സാധാരണ വരുന്ന മൂഞ്ഞയുടെ പ്രശ്നങ്ങളും അല്ലെങ്കില് കാറ്റുവീഴ്ചയൊന്നും പിന്നെ ഏതാണ്ടൊരു ഒരു വണ്ടൊക്കെ കയറി നശിപ്പിക്കുന്നതുണ്ടല്ലോ അപ്പോള് അതിനെയൊക്കെ റെസിസ്സ്റ്റ് ചെയ്യാനായിട്ട് ട്രീറ്റ് ചെയ്ത് പ്രത്യേകം ഡെവലെപ്പ് ചെയ്തെടുത്തതാണ് ഈ നമ്മുടെ നെല്ലിൻറ്റേതാണെങ്കിലും നമ്മുടെ വാഴയുടേതാണെങ്കിലും വിത്തുകള് പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണെങ്കിലും ഗവൺമെൻറ്റ് അത് സബ്സിഡൈസ്സ് ചെയ്തുതരുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് പിന്നെ നമുക്കിത് പെട്ടെന്ന് വളർച്ചയെത്തും നമുക്ക് സാധാരണ എടുക്കുന്ന സമയത്തിനെക്കാള് അത്രയും തന്നെ എടുക്കില്ല ഒരു ഇരുപത്തിയഞ്ച് ശതമാനം സമയലാഭമുണ്ട് നമുക്ക് ഇതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഈ വാഴയാണെങ്കിലും അത് അത്ര പെട്ടെന്നൊന്നും കേടൊന്നുമുണ്ടാകില്ല നേരത്തെയൊക്കെ മനുഷ്യരത് വാഴയുടെ വിത്ത് പ്രത്യേക ലായിനിയിലൊക്കെ മുക്കിയിട്ടൊക്കെ നടണമായിരുന്നു ഇതങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് സ്ഥലവും വേണ്ട ഇല്ല ഇല്ല അത് തടയാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത് കാരണം ഈ കീടനാശിനിയൊക്കെ നമ്മുടെ വെള്ളത്തിലേക്കുമൊക്കെ എത്തുന്നുണ്ടല്ലോ നമുക്കും നമുക്കും നല്ലതല്ല നമ്മളിത് ഇതൊക്കെ ഉപയോഗിക്കുമ്പോള് അതെ കൈയില് പറ്റിയും ശ്വസിച്ചുമൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അധികം കീടനാശിനിയൊന്നും വേണ്ടാത്ത തരത്തില് ഡെവലപ്പ് ചെയ്തെടുത്ത വിത്തുകളാണ് ആ വളം അവൈലബിളാണ് ആ വളം അവൈലബിളാണ് എങ്കിലും നമുക്ക് സാധാരണയായിട്ടുള്ള നമ്മുടെ ഇത് ചാണകപ്പൊടിയാണെങ്കിലോ അല്ലെങ്കില് നമുക്ക് സാധാരണ കിട്ടുന്ന വളം ഉപയോഗിച്ചാലും മതി ഇവിടുത്തേത് തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അല്ലാതെതന്നെ നല്ല വളർച്ച കിട്ടുന്നുണ്ട്

ആ തീർച്ചയായിട്ടും ആ പോകേണ്ട ആവശ്യമില്ല അതാകുമ്പോള് അത് കൃത്യം അനുപാതമൊക്കെ ചേർത്താണവര് ആ വളമൊക്കെ വെച്ചിരിക്കുന്നത് ചിലപ്പോള് അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം അപ്പം ആ നിങ്ങള്ക്ക് കോട്ടയത്തുള്ള ഓഫീസ് അടുത്ത് പറയുകയാണെങ്കില് ചിങ്ങവനത്തൊരു ഓഫീസുണ്ട് അപ്പം ആ ചിങ്ങവനമെന്ന് പറയും ആ ചിങ്ങവനത്തൊരു ഓഫീസുണ്ട് അപ്പം അവിടുത്തെ നമ്പര് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും

തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ആ ഞാനും മതി മതി ഞാനും ആ ഓഫീസില് അറിയിച്ചേക്കാം ആ നിങ്ങള്ക്ക് എത്ര എത്ര വാഴ വിത്ത് വേണമെന്നും പിന്നെ നെല്ലിൻറ്റെയാണെങ്കിലും എന്തോരം വിത്ത് വേണമെന്നുള്ളതും കൂടെയൊന്ന് എന്നെയൊന്ന് അറിയിക്കുകയാണെങ്കില് അത് ആ സമയത്ത് അതുപോലെ ചെയ്യാമല്ലോ ആ ഓക്കെ ആ ഞാനറിയിച്ചേക്കാം ഓക്കെ ഓക്കെ ആ